ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായും വിനോദസഞ്ചാരികൾ വരുന്ന പ്രദേശം മൂന്നാറാണ് അവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വിദേശത്തു നിന്നൊക്കെയായി ഇങ്ങോട്ട് വരല് വരാറുണ്ട് അവർക്ക് ഗൈഡ് കൊടുക്കാനായിട്ടും ഒരുപാട് ഗൈഡ് ചെയ്യുന്ന നന്നായിട്ട് അവരെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഗൈഡുകളും ഉണ്ടാകാറുണ്ട് അവർക്ക് ഏ ഏത് ഏത് വിധത്തിലും ഇത് സംശയം ചോദിച്ചു മനസ്സിലാക്കാനും അവർക്ക് എല്ലാ കാഴ്ചകളും കാണിക്കാനും ഒക്കെ വേണ്ടി നല്ല ഗൈഡുകൾ ഉണ്ട് അവർക്ക് എല്ലാ ഭാഷകളും മിക്ക ഭാഷകളും അവർക്ക് അറിയുന്ന ഗൈഡുകളാണ് ഉള്ളത് പൊതുവായി പ്രധാനമായും ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്ന ഭാഷകളാണ് കൂടുതലായിങ്ങാണ്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ ഉണ്ടാവുക അതുപോലെ അവർക്ക് എല്ലാ ഭാഷയിലും പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ അവർക്ക് കെയർ ചെയ്യാന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എൻ്റെ പ്രദേശത്ത് വിനോദസഞ്ചാരികളെ മുഷിപ്പിക്കാതെ അവർക്ക് നല്ല എല്ലാ എല്ലാ വിധത്തിലും എല്ലാ സംരക്ഷണവും എല്ലാ ഹെല്പ്പും ചെയ്ത് അവരെ സന്തോഷമായി തന്നെ എല്ലാ കാഴ്ചകളും കാ കാണിച്ചു കൊടുത്ത് തിരിച്ച് വിടാറുണ്ട് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് മടങ്ങി പോകാറുള്ളത്